ഹോട്ടലുകളിലും തട്ടുകടയിലുമൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ചൂടായിട്ട് കിട്ടുന്നത് അത് ഞങ്ങള് കഴിക്കാറുണ്ട് മെയിൻലി നോക്കാറുള്ളത് പൊറോട്ട ബീഫ് പൊറോട്ടയും ബീഫുമാണ് കൂടുതലും നോക്കുക നല്ല ചൂട് പൊറോട്ടയില്ലേ അതിൻ്റെ മുകളിലേക്ക് നല്ല ബീഫ് കറിയൊഴിച്ച് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളതാണ് ഏറ്റവും കൂടുതലായിട്ട് നോക്കാറ് പിന്നെ നമ്മള് ഓംപ്ലേറ്റ് കഴിക്കാറുണ്ട് ഓംപ്ലെയിറ്റ് കഴിക്കും പിന്നെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈയ്യൊക്കെ ചൂടോടെ അവരിങ്ങനെ ലെഗ് പീസൊക്കെ തരും അപ്പോൾ നമുക്ക് അതൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഈ രാത്രിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ തട്ടു കടയിൽനിന്ന് മെയിനായിട്ട് അതേ കഴിക്കുകയുള്ളൂ അങ്ങനെ നമ്മള് ഈ ജോലിഭാരത്തിൻ്റെ ഇടയില് ചിലപ്പോൾ പത്ത് മണിക്കൊക്കെ നമ്മള് ചായ കുടിക്കാനൊക്കെ പോകുന്ന സമയത്ത് തട്ടുകടയിൽനിന്ന് അവിടെയാണ് എന്നുണ്ടെങ്കിൽ അവിടുന്ന് നല്ല ചൂട് അപ്പം കിട്ടും അപ്പവും നല്ല ചമ്മന്തിയും കുറച്ച് ചട്ട്ണിയും ഒഴിച്ചിട്ട് അവര് തരും വിലക്കുറവാണ് നല്ല വിലക്കുറവാണ് അതുപോലതന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റി ഫുഡായിരിക്കും എപ്പോഴും തട്ടുകടയിൽ നമുക്ക് നമ്മളീ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരുന്നു കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത് ഈ തട്ടുകടകളൊക്കെയാണ് അവിടെ നമുക്ക് നല്ല ടേസ്റ്റി ഫുഡുകൾ കിട്ടാറുണ്ട് നമുക്ക് ഏത് നേരത്ത് വേണമെങ്കിലും പോവാം നമ്മള് ഇപ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അവര് ചൂടാക്കി ചൂടോടെ ഉണ്ടാക്കി തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തട്ടുകടകളാണ് ഏറ്റവും കൂടുതലൽ പോവാറ് അവിടെ പോയാൽ നമ്മള് കഴിക്കുന്നത് ഇമ്മാതിരി ആ പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയായിരിക്കും ഇപ്പോൾ നോൺവെജ് ഐറ്റംസായിരിക്കും നമ്മൾ എറ്റവും കൂടുതല് കഴിക്കുന്നത് അതുപോലെ നമുക്ക് ചിക്കൻ ന്യൂഡിൽസൊക്കെ അവര് നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കിത്തരും അപ്പോൾ നമുക്കവിടുന്ന് അത് ചൂട്ടോടെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്